പൊതുവേ മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പം മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് കാര്യത്തിനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്കത് മാറ്റാൻ പറ്റും ഇപ്പം ഇതുപോലെ പറയാനുള്ളത് എഴുതാനുള്ളതും പക്ഷെ ഇതിനകത്ത് ബുദ്ധിമുട്ടെന്നായെന്നു പറഞ്ഞാൽ ഈ അതിൻ്റകത്തക്ഷരങ്ങൾ തന്നെ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ എഴുതുന്നത് തന്നെ അതിപ്പോൾ തമിഴിനെ വെച്ചു നോക്കുമ്പോൾ തമിഴിനാണ് നിന്നാണ് മലയാളം ഉണ്ടായത് പക്ഷേ എന്നാലും ഇതേ പോലെ എന്താണ് അങ്ങനൊരു പ്രശ്നം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഈ പ പ എന്തിനും പ്രക്ടീസ് ചെയ്താക്കാം പക്ഷെ കമ്പേർഡ് ടു ഹിന്ദി മലയാളം ഈസ് മോർ ടഫർ ദേൻ ഹിന്ദി ബിക്കോസ് മലയാളമാണ് മലയാളത്തിലുള്ള ഉച്ഛാരണങ്ങൾ ഇപ്പം എന്താ മലയാളിക്ക് മാത്രമേ വൃത്തിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനെ ഇപ്പം പറഞ്ഞു തന്നെ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ സംസാരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സലാവില്ല എല്ലാറ്റിനും സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച് അത് നമുക്ക് നമുക്കൊരു വഴങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എല്ലാ കാര്യം ചെയ്യുന്ന പോലെ നമുക്കത് ചെയ്തു തീർക്കാവുന്നതേയുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ